കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മണ്ണ് മാന്തി മണ്ണ് കിളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ മമ്മട്ടി പോലുള്ള സാധനം അതുപോലെ തന്നെ കൂന്താലി അതായത് ഉറപ്പുള്ള മണ്ണിനെ ഇളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണെന്ന് കൂന്താലീന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പണ്ടുള്ള കാലങ്ങളിൽ ഈ കൃഷി സ്ഥലത്തേക്ക് പിന്നെ കണ്ടത്തിലേക്ക് വേണ്ടി എടുത്തിരുന്നത് നമ്മുടെ എന്താ കന്ന് പൂട്ടുന്ന കന്നുകാലികളെയായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത് മ കണ്ടം ഉഴുവാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്നിപ്പം അത് മാറിയൊക്കെ വന്നിട്ട് കണ്ടം ഉഴുന്ന ട്രാക്ടർ പോലുള്ള വണ്ടികളും അതുപോലെ തന്നെ മെഷീനും ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ഇന്നിപ്പം കൃഷി രംഗത്ത് എടുത്ത് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ വാഴ വാഴയോ അല്ലെങ്കിൽ ഈ പയറ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ മണ്ണ് വെട്ടാനായിട്ട് തൂമ്പ മമ്മാട്ടി ഉപയോഗിക്കും അതുപോലെ തന്നെ കട്ടിയുള്ള മണ്ണാണെങ്കിൽ അവിടെ നമ്മൾ കൂന്താലി എന്നുള്ള സംഭവം ഉപയോഗിക്കും പിന്നെ ഇത് ഇളക്കിയ മണ്ണിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ തൈ നടുകയും പാവയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അത് കൂടാതെ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിച്ചാത്തി പിച്ചാത്തി വേണം നമുക്ക് കയ്യിൽ പിച്ചാത്തി വേണം ഓരോന്നൊക്കെ കട്ട് ചെയ്ത് നടാനൊക്കെ വേണ്ടിയിട്ട് പിന്നെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ നെല്ലൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട് മറ്റേ പിച്ചാത്തി പിച്ചാത്തി വേണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃഷിക്കായിട്ട് പിന്നീടെന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെ ഒരു ഉപകരണത്തിന് സമമാണ് ഇതിന് ഇത് ഈ ഉപകരണങ്ങളുണ്ടായിട്ട് കാര്യമില്ലല്ലോ മനുഷ്യനും കൂടെ വേണമല്ലോ ഉപകരണത്തെ പോലെ തന്നെ കഷ്ടപ്പെട്ട് ചെയ്യണമെങ്കിൽ അതിന് മനുഷ്യൻ തന്നെ വേണം പിന്നെ പിന്നെ കൃഷിക്കായിട്ട് വളങ്ങൾ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ ഉപകരണങ്ങൾ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് കൃഷിയുടെ വളം അതുപോലെ തന്നെ വിത്ത് പിന്നെ വെള്ളം പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള മണ്ണ് ഇതെല്ലാം തന്നെ നമുക്ക് കൃഷിയിൽ ഒരു പരിധി വരെ ഉപകരണങ്ങൾ രീതിയിൽ കൂട്ടാവുന്നതാണ് പിന്നെ വെള്ളം വേണം പിന്നെ ഇത് നമുക്ക് കൃഷിക്കായിട്ട് പ്രധാനമായിട്ടും വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മാട്ടി തന്നെയാണ് ഒരു ഒരു തടവെടുക്കാനായാലും പിന്നെ മണ്ണ് മാറ്റിയിടാനായാലും മണ്ണ് മാന്താനായാലും ഒക്കെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് മമ്മാട്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ ഈ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ടായാലും എന്താ മണ്ണ് നീക്കം ചെയ്ത് കളയാൻ അല്ലെങ്കിൽ മണ്ണ് കൂട്ടിയിടാനൊക്കെ നമ്മുടെ കൈ കൊണ്ട് സാധിക്കും പിന്നെ വരുന്നത് പിന്നെ മണ്ണ് പണ് മാന്തി അതായത് നമ്മൾ ഇപ്പം മണ്ണ് കിളച്ചിട്ടിട്ട് അതിനെ ഒന്ന് അരിപ്പിച്ച് അതായത് അന്ന് ത കല്ല മണ്ണൊക്കെ മാറ്റി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് മണ്ണ് മാന്തി അതായത് ചെറിയ ഒരു ഈ രണ്ട് മൂന്ന് കൈകളായിട്ടിരിക്കുന്ന ഒരു കമ്പിപോലത്തൊരു സാധനമാണ് ഈ മണ്ണ് മാന്തി എന്ന് പറയുന്നത്